വീട്ടുമുറ്റത്തേക്ക് പക്ഷികളെ ആകർഷിക്കാൻ സാധാരണയായി എനിക്ക് ചെയ്യാൻ സമയം കിട്ടാറില്ല പിന്നെ ആകർഷിക്കാനായിട്ട് നമുക്ക് ചെടികൾ വെച്ചിട്ട് പിടിപ്പിക്കാം പൂക്കളുള്ള ചെടികളും തേനുള്ള ചെടികളും അധികം വെച്ചുപിടിപ്പിച്ചാലേ പൂ കിളികളെയും പൂമ്പാറ്റകളെയുമെല്ലാം ആകർഷിക്കാനായിട്ട് സാധിക്കൂ പിന്നെ വേനൽ കാലത്ത് വെള്ളത്തിന് ക്ഷാമം വരുന്ന സമയത്ത് അതായത് വേനൽകാലമൊക്കെ ആകുമ്പോൾ ടെറസിൻ്റെ മുകളിലും വീടിൻ്റെ പല തുറസ്സായ ഭാഗങ്ങളിലും ചിരട്ടയിലും മറ്റ് പാത്രങ്ങളിലായി വെള്ളവും അതുപോലെ ആഹാര വസ്തുക്കളായിട്ടുള്ള പയർ കടല അങ്ങനെയുള്ള സാധനങ്ങളും വെച്ചുകൊടുക്കാറുണ്ട് അത് സമയം കിട്ടുമ്പോഴൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് കൂടുതലായും വയ്ക്കുന്നത് ടെറസിൻ്റെ മുകളിലാണ് വൈകുന്നേരം ആവുമ്പത്തേഴും അത് വെള്ളവും ഭക്ഷണസാധനങ്ങളും പക്ഷികളും പല ജീവജാലങ്ങളും വന്ന് കഴിക്കാറുമുണ്ട് അത് എപ്പോഴും വയ്ക്കാറില്ല വേനൽ കാലത്ത് മാത്രമാണ് ഞങ്ങൾ അതിന് ചെയ്യാറുള്ളൂ